എനിക്ക് കുറേ ഹോബീസ് ഉണ്ട് അപ്പോൾ എൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കുന്നതാണ് ഒരു ഹോബി അപ്പോൾ എല്ലായിടത്തും പോയിട്ട് ഞാൻ ഫോട്ടോ എടുക്കലുണ്ട് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അമ്പലങ്ങളിലെല്ലാം പോയിട്ട് തെയ്യത്തിൻ്റെ എല്ലാം ഉത്സവത്തിന്റെ എല്ലാം ഫോട്ടോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാംസിൽ ഫേയ്സ്ബുക്കിലെല്ലാം അതും മെയിൻ ഒരു ഹോബീസ് ആണ് എന്റേത് പിന്നെ അടുത്ത ഹോബി എന്ന് പറയുന്നത് എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ചെല്ലാം ഞാൻ ട്രാവൽ ചെയ്യാറുണ്ട് എല്ലായിടത്തും ദൂരെ പോകാറുണ്ട് അത് ചില സമയം ഞാൻ ബസിൽ പോകും ചില സമയം ഞാൻ ട്രെയ്നിൽ പോകും ചില സമയം സ്വന്തമായിട്ട് ബൈക്കെടുത്തിട്ട് പോകും അതുകൂടാതെ ചില സമയം ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച് കാറിലും പോകാറുണ്ട് അതിൽ ലോങ്ങ് ട്രിപ്പും ചെയ്യാറുണ്ട് ഷോർട്ട് ട്രിപ്പും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പിന്നൊന്നിച്ച് ട്രക്കിങ്ങ് ചില സമയം ചെയ്യാറുണ്ട് മലയിൽ കുന്നുകളിൽ എല്ലാം കയറിയിട്ട് ട്രക്കിങ്ങ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അടുത്ത ഹോബി എന്ന് പറയുന്നത് എനിക്ക് കംപ്യൂട്ടറിൽ ഗെയിം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ കുറേ ഗെയിംസ് ഞാൻ കളിക്കാറുണ്ട് അതുപോലെ തന്നെ മെയിൻ മൊബൈൽ ഗെയിംസും ഞാൻ കളിക്കാറുണ്ട് പിന്നെ ഒരു ഹോബി എന്ന് പറയുന്നത് പ്ലെയിൻ ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതും ഫ്രണ്ട്സിൻറ്റൊന്നിച്ച് എപ്പോഴും ക്രിക്കറ്റ് കളിക്കാറുണ്ട് രണ്ട് മൂന്ന് മണിക്കൂറെല്ലാം കളിക്കാറുണ്ട് ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് തന്നെ എല്ലാം അടിപൊളി ആകാറുണ്ട് അതുപോലെ തന്നെ പാട്ട് കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ യേശുദാസിന്റെയും കെ എസ് കെ എസ് ചിത്രയുടെ എല്ലാം പാട്ട് ഞാൻ കേൾക്കാറുണ്ട് അതുപോലെ തന്നെ ഹിന്ദിയിലെ ബോളിവുഡ് സോ പാട്ടുകളും ഞാൻ കേൾക്കാറുണ്ട് അരിജിത്ത് സിംഗിൻ്റെതും ശ്രേയ ഘോഷാലിൻറ്റെയും പാട്ടെല്ലാം നമ്മൾ കേൾക്കാറുണ്ട് അതും എനിക്ക് ഇഷ്ടമാണ് ഫ്രീ കിട്ടുന്ന ടൈമിലാണ് എനിക്ക് കൂടുതലും പാട്ട് കേൾക്കാനാണ് ഇഷ്ടം അതുപോലെ തന്നെ ടി വി വാച്ച് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ പഴയ ഫിലിംസ് എല്ലാം പാട്ട് ഫിലിംസ് എല്ലാം ടി വിയിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ക്ലാസിക് ഫിലിമുകളെല്ലാം ഞാൻ കാണാറുണ്ട് ടി വിയിൽ കൂടിയിട്ട് അത് നല്ല രസമാണ് അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു ഹോബി ആണ് വീഡിയോസ് എല്ലാം എടുത്തിട്ട് എഡിറ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഒരു താൽപ്പര്യമുള്ള ഒരു കാര്യമാണ് അപ്പം അത് ഞാനധികം ചെയ്യാറുണ്ട് ടി വി അമ്പലത്തിൽ പോയിട്ട് ദൈവത്തിൻ്റെ വീഡിയോ എല്ലാം എടുത്തിട്ട് അതിന്റെ വീഡിയോ എഡിറ്റ് ആക്കിയിട്ട് നല്ല സോങ്ങ് എല്ലാം ആഡ് ആക്കിയിട്ട് ഇൻസ്ഗ്റ്റാഗ്രാമിലെല്ലാം പോസ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഹോബീസ്